ഇന്ത്യൻ സംസ്കാരത്തിൽ ഒത്തിരി നൃത്തരൂപങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കഥക് കഥകളി ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങന ഒത്തിരി നൃത്തരൂപങ്ങൾ നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ കാണാൻ പറ്റും ഓരോ നൃത്തരൂപങ്ങളും ഓരോ സംസ്കാരത്തെയാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ സംസ്ഥാനങ്ങളിലെ ഓരോ കൊച്ചു ഗ്രാമങ്ങൾക്കും ഓരോ സംസ്കാരങ്ങളും ഉണ്ട് ഓരോ കഥകളും ഒക്കെയുണ്ട് ഇപ്പം കേരളത്തിൻ്റെതാണ് കഥകളി എന്ന് പറയുന്നത് ഈ കഥകളി അവരുടെ പണ്ടുകാലത്തെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ ഓരോ നൃത്തരൂപങ്ങൾക്കു പിന്നിലും ഓരോ കഥകളും ഓരോ സംസ്കാരങ്ങളുമുണ്ട് അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ സ്വത്ത് എന്ന് തന്നെ പറയാം ഓരോ നൃത്തരൂപങ്ങളും അതിന് ഒത്തിരി പ്രാധാന്യം ഉണ്ട് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രമായിട്ട് ഇന്ത്യയുടെ പണ്ട് കാലത്തെ ചരിത്രങ്ങളും അല്ലെങ്കിൽ രാജാക്കന്മാരുണ്ടായിരുന്ന കാലം തൊട്ടേയുള്ള ചരിത്രങ്ങളും അതിന് മുമ്പ് തൊട്ടേയുള്ള ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ത്യൻ സംസ്കാരത്തിലെ നൃത്തരൂപങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി പ്രാധാന്യം ഉണ്ട് ഈ നൃത്തരൂപങ്ങൾ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപങ്ങൾക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ പരമ്പരാഗത നൃത്തരൂപങ്ങൾക്ക് പ്രാധാന്യമുള്ളത് ഇപ്പം നല്ലൊരു പരമ്പരാഗത നർത്തകൻ ആകാൻ വേണ്ട ഗുണങ്ങളൊന്നും പറയാൻ ആദ്യമായിട്ട് നമ്മൾ സംസ്കാരത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു നൃത്തരൂപം ഉണ്ടായത് ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിലെ ഓരോ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളും അതിൻ്റെ മുദ്രകൾ അങ്ങനെയുള്ള ഓരോ കുഞ്ഞ്കുഞ്ഞ് കാര്യങ്ങളും നമ്മളറിയണം നമ്മൾ ആ ഒരു നൃത്തരൂപത്തിലേക്ക് കൂടുതൽ അറിഞ്ഞാലേ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാനും അതുപോലെത്തന്നെ അതൊക്കെ ചെയ്യാനും പറ്റത്തൊള്ളൂ അത് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ ഒരു അത് അതിനെ നമ്മൾ ഒരു നൃത്തരൂപവും എന്ത് കാര്യവും നമ്മളെ ചെയ്യണം എങ്കിൽ നമ്മൾ അതിനെ ആദ്യം സ്നേഹിക്കണം അതിനെകുറിച്ച് അറിയണം അപ്പം നമ്മളൊരു കാര്യത്തെ കുറിച്ച് അറിയാൻ ഉള്ള ഇൻട്രസ്റ്റ് കാണിക്കുക നമുക്ക് അതിനോടൊരു ഒരിഷ്ടം തോന്നുമ്പോഴാണ് അതുപോലെ നമ്മൾ ഓരോന്നിനെ കുറിച്ചും അതുപോലെ നമ്മൾ ഓരോ നൃത്തരൂപത്തെ സ്നേഹിച്ചാലും നമുക്കതിലേക്ക് കൂടുതൽ ഇറങ്ങി പഠിക്കാനും അതിന് വേണ്ട രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാനും പറ്റത്തൊള്ളൂ ആദ്യം നമുക്ക് വേണ്ട ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നതും അത് തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മളത് പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിനോട് കൂടുതൽ മനസിലാക്കാൻ അതിനോട് കൂടുതൽ ബന്ധപ്പെടാനും പറ്റും